ഓ അതെന്താണ് നല്ലൊരു യാത്രാ വാഗമൺ യാത്രയായിരുന്നു വാഗമൺ യാത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി മൂന്ന് കാറിലാണ് പോയത് അതൊരു എക്സെയ്റ്റ്മെൻറ്റായിരുന്നു കാരണം ഞങ്ങൾ മൂന്ന് ഫാമിലിയും ഒന്നിച്ച് മൂന്ന് കാറുകൾ അടുത്തടുത്ത് ഓ ഒരാൾ അപ്പുറത്തിരുന്നു കൊണ്ട് ഫോൺ വിളിച്ചിട്ട് ഇപ്പുറത്ത് സംസാരിക്കും ഇവിടുന്ന് സംസാരിക്കുന്നത് അടുത്ത കാറിലേക്ക് പാസ് ചെയ്യും അങ്ങനെ നല്ല രസമായിട്ട് പോയി അവിടെ ചെന്ന് ഓ അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം കൊണ്ടും നമുക്ക് നല്ല ഇഷ്ടമായി ഇവിടുന്ന് രാവിലെ തിരിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പം ഏതാണ്ട് എട്ടു മണിയായി എങ്കിലും ഞങ്ങളിവിടുന്ന് ബുക്ക് ചെയ്ത് റൂമെല്ലാം റെഡിയായിരുന്നു അതിനാൽ നമ്മളാ സ്ഥലത്തെത്തിപ്പെടാൻ കുറച്ച് കറങ്ങേണ്ടി വന്നു കാരണം നമ്മുടെ ഗൂഗിൾ മാപ്പിട്ടാണ് പോയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അവസാനം റൂം ബോയിയെ വിളിച്ച് ശരിക്കും സ്ഥലം മനസ്സിലാക്കി വീണ്ടും പോയി അവിടെ സ കൃത്യമായിട്ടെത്തി അവിടെ ചെന്ന് രാത്രി അവിടെ തങ്ങി ഫുഡൊക്കെ അവിടെ തന്നെ ഓർഡറ് ചെയ്തിരുന്നു അപ്പോൾ ഫുഡും കഴിച്ച് രാത്രി കൊ അവിടെ ഉറങ്ങി രാവിലെ എണീച്ച് ഞങ്ങൾ വീണ്ടും അവിടെയുള്ള സ്ഥലങ്ങൾ കാണാൻ അവിടത്തെ ട്രക്കിൽ ഞങ്ങൾ പോയി അവിടെ പോയി ഹൊ എന്തോരം കാഴ്ചകളായിരുന്നു അവിടെ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റി നല്ല രസമായിരുന്നു പിള്ളേരെക്കെ ആണെങ്കിൽ അന്ന് എന്നെക്കാളും അവരാണ് ശരിക്കും ആടിപ്പാടി കളിച്ചത് എന്നാലും ഞാ എനിക്കും അതൊരു വലിയ എൻറ്റർടൈമ് ആയിരുന്നു കാരണം അവിടുത്തെ ആ ഓരോ മരങ്ങളും അവിടുത്തെ പൂക്കളും ഓരോ പൂവും ഓരോ വ്യത്യസ്ത പൂക്കളായിരുന്നു ഞങ്ങൾ അതീനൊക്കെ പൂവൊക്കെ പറിച്ച് ഓരോ അരുവികളും നോക്കി നിന്ന് അരുവികളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെയൊക്കെ കൈകൊണ്ട് തട്ടിക്കളിച്ച് അങ്ങനെ പിള്ളേർക്കാണെങ്കിൽ നല്ല ഇഷ്ടവായി എന്നെ എനിക്ക് എൻ്റെ കൊച്ചു മോനാണെങ്കിൽ അതിനേക്കാലും തുള്ളി ചാടി അമ്മൂമ്മ നമുക്ക് അവിടെ ഒന്നുകൂടെ പോവാം ഒന്നുകൂടെ പോവാം എന്നു പറഞ്ഞ് ഞങ്ങൾ റൂമി ചെന്നിട്ടും ഞങ്ങൾ വീണ്ടും വീണ്ടും ഓരോ സ്ഥലങ്ങൾ കാണാനിങ്ങനെ നടന്നു പോകാമെന്ന് തീരുമാനിച്ച് കുറെ ദൂരം ഞങ്ങൾ തന്നെത്താനെ നടന്ന് നടന്ന് പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു അത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് പക്ഷേ എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള ദൂരെ യാത്രകൾ പൂവാൻ ഞങ്ങൾ ഞാൻ ഇനീം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും അതൊരു വലിയ അനുഗ്രഹം പോലെയാണ് തോന്നിയത് കാരണം മൂന്ന് കാറുകളിൽ ആണ് പോയത് ഞങ്ങളുടെ മൂന്ന് കാറുകളും ഒരേ പോലെ ഒന്ന് തൊട്ട് ഒന്ന് തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് പക്ഷേ ഒന്നിച്ചു പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതിന് നമ്മൾ വിചാരിച്ചു നമ്മുടെ കാറുള്ളപ്പോൾ നമ്മളെന്തിന് വേറെ വണ്ടി പിടിച്ച് പോകുന്നത് ഇങ്ങനെ പോകാം എന്ന് തീരുമാനിച്ചതാണ് പോയത് പക്ഷേ എന്നായാലും ഒന്നിച്ച് ചെന്ന് വന്ന് ഒരിടത്ത് തങ്ങി ഒരിടത്ത് നിന്ന് ഒരിടത്തെന്ന് എല്ലാം കണ്ട് ഒരുപാട് ദെ രണ്ടു ദിവസം കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചെത്തിയത് അതിൽ ഒരു വലിയ ഇതുണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷത്തോടെയാണ് തിരിച്ച് മടങ്ങിയത് ഇനിയും അങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്തായാലും വാഗമൺ കാണേണ്ട കാ സ്ഥലം തന്നെയാണ് ഒരുപാട് ചെടികളും പൂച്ചെടികളും പല പല വെറൈറ്റി മരങ്ങളും വഴിയോര കച്ചവടക്കാർ അവർക്ക് അവരാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഓരോന്ന് എടുത്ത് തരാൻ എന്തൊരു ഉത്സാഹം കാണിച്ചെന്നറിയാമോ നമുക്ക് അതൊക്കെ വാങ്ങാനും കുറച്ചൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി എങ്കിലും ഞങ്ങൾക്കൊരു നല്ലൊരു എൻറ്റർടൈമയായിരുന്നു അത് ഇനിയും അങ്ങനെയുള്ള അവസരങ്ങൾ വരാൻ വന്നാൽ പോകണം എന്ന് തന്നെയാണ് തീരുമാനം എന്തായാലും ഇങ്ങനെയുള്ള യാത്രകൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇനിയും ഇതേപോലുള്ള യാത്രകൾ ഇനിയും ഉണ്ടാവണം എന്നാണെൻ്റെ ആഗ്രഹം അതുപോലെ നടക്കും എന്നായി എന്നാണെൻ്റെ വിശ്വാസം അത് എത്ര എത്ര ആയാലും അതു മറക്കാൻ പറ്റൂല എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ആ യാത്രയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കില്ല അത്ര നല്ല സ്ഥലമായിരുന്നു എന്തായാലും വാഗമൺ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്